പാലക്കാട് ജില്ലയിലെ പ്രധാന ഉല്ലാസ പ്രവർത്തനം അല്ലെങ്കിൽ വിനോദം എന്ന് പറയണത് മെയിനായിട്ട് മലമ്പുഴ ഡാമാണ് അതുപോലെ ചെറു ചെറു ചെറുകിട ഡാമുകളുണ്ട് അതുപോലെ പഴയ രീതിലുള്ള പഴയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് നാടൻ പരിപാടികള് പൂന്തോട്ടം പാർക്ക് എന്നൊക്കെ പറഞ്ഞാലൊരു സ അത്ര ഈ മലമ്പുഴ അല്ലെങ്കി അതുപോലുള്ള ഒന്നു രണ്ട് ചെറിയ ഡാമിന് ചുറ്റുമതിലുള്ള മെയിനായിട്ട് മലമ്പുഴ തന്നെയേ അത് പറയാൻ പറ്റുള്ളൂ മറ്റുള്ള അത്രേം ഇല്ല പിന്നൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങള് ഒരുപാട് കാണാനൊണ്ട് ഇപ്പോ ധോണി അതല്ലെങ്കി എന്താ പറയുക മറ്റുള്ള ഗവ അതുപോലെ അതുപോലുള്ള സ്ഥലങ്ങള് അതുപോലെ ഹില്ല് ഏരിയകള് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് ആറ്റിട്യൂട് അതല്ലങ്കിൽ നെമ്മാറ ഭാഗം അതല്ലങ്കില് ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിലെ തന്നെ ശ്രദ്ധിക്കണെമെങ്കിൽ നമ്മുടെ വയനാട് ഭാഗത്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളില് ഏഹ് അവിടൊക്കെ ആണ് കൂടുതൽ ഉള്ളത് മൈ മൈതാനങ്ങളും പാർക്കുകളും പൂന്തോട്ടങ്ങളും ഒക്ക അത്ര അധികം ഒന്നും ഇല്ല്യ ഉള്ളിടത്ത് പണം നൽകേണ്ടതിപ്പം ഇപ്പം പണം നൽകേണ്ടത് മെയിനായിട്ട് ഈ ഡാമുകളുടെ പരിസരത്ത് സർ സർക്കാരിൻ്റെ കീഴിലുള്ള ഉള്ള സ്ഥലങ്ങള് മാത്രമേ ഉള്ളു ഒരു വിനോദ സഞ്ചാര കേന്ദ്രം അതല്ലങ്കിൽ ഒരു വിനോദ കേന്ദ്രമെന്ന് പറയാൻ അതു തന്നെ ഉള്ളൂ പിന്നെ തിയേറ്ററുകളുണ്ട് തിയേറ്ററുകളിപ്പോൾ ഗ്രാ ഗ്രാമീണ മേഖലകളിൽ തന്നെ തിയറ്ററുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനാളുടെയൊക്കെ ഭാഗത്ത് ഇപ്പോൾ പാലക്കാട്ട് ടൗണില് രണ്ട് മൂന്ന് തിയറ്ററുകളുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഗ്രാമങ്ങളിലൊക്കെ തിയറ്ററുകളുണ്ട് ഒരുപാട് അടച്ചു പൂട്ടി ഒരുപാട് ക്ലോസ് ചെയ്തു അവിടൊക്കെ അതൊക്കെ മാറി അവിടൊക്കെ വേറെ എന്തങ്കിലൊക്കെ ആക്കി മാറ്റി ഉണ്ടെങ്കിലും തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു വരുവാണ് എങ്കിലും ഇപ്പോൾ അത് സിനിമാ രംഗത്ത് സിനിമ പിടിക്കുന്ന സ്ഥലം കൂടുതലാണ് ഒറ്റപ്പാലം ഭാഗത്ത് ഒക്കെ സിനിമ പിടിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നേ പണം നൽകാത്ത സ ഇതു കൊണ്ട് നടക്കുന്നത് വളരെ അപൂർവമുള്ള സലങ്ങളേ ഉള്ളൂ എല്ലായിടത്തും സാമ്പത്തികമൊക്കെ വേണം നിങ്ങള് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഹില്ലേരിയയിലെ അതല്ലങ്കിൽ മറ്റ് കുറച്ച് കാട്ട് പ്രദേശങ്ങള് അവിടൊന്നും പൈസ വേണ്ട